ഓരോ ഗ്രാമ പ്രദേശത്തും അതിന്റേതായ പാരമ്പര്യ കളികളുണ്ട് ആ ഗ്രാമ പ്രദേശത്തെ സവിശേഷതകളെല്ലാം പ്രചരിപ്പിക്കാനും സംരക്ഷിക്കാനും ഈ ഒരു പരമ്പരാഗത കളികൾക്ക് അത്രത്തോളം പങ്കുണ്ട് ഒരുപാട് പേർ ആ കളികളെ കുറിച്ചെല്ലാം അറിഞ്ഞ് അവിടെ അവിടത്തോട്ട് വരുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെ ആ ഗ്രാമപ്രദേശത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു പരമ്പരാഗത കളികളിലൂടെ ഒരുപാട് പേർ അറിയുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒരുപാട് കളികളിൽ ഏർപ്പെട്ടവരായിരുന്നു നമ്മുടെ പൂർവ്വികരെല്ലാം പക്ഷെ ഇന്നത്തെ കാലത്ത് കളികളെല്ലാം എല്ലാവർക്കും മറന്ന് പോയിരിക്കുന്നു കളികൾ എന്താണെന്ന് പോലും കളിച്ച് വളരാത്ത കുട്ടികളായിട്ടാണ് എല്ലാവരും വളരുന്നത്